എൻ്റെ കയ്യിലാണെങ്കിൽ പണ്ടത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഉണ്ട് പിന്നെ പണ്ടത്തെ ഫോട്ടോയുടെ പ്രത്യേകത നമ്മള് നമുക്ക് പല വിധത്തിലുള്ള മെമ്മോറിസ് ഓർമ്മകള് സമ്മാനിക്കുന്നതായിരുന്ന് ഈ ഫോട്ടോ കാരണം പണ്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ ഫോൺ ഇല്ലായിരുന്നു അല്ലേൽ കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു അങ്ങനെയുള്ള പല സാങ്കേതികവിദ്യയുടേയും അഭാവം ഉണ്ടായിരുന്നു പക്ഷെ ആ ഫോട്ടോ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള ഓർമകള് നമ്മുടെ ജീവിതത്തില് ഭയങ്കരമായിട്ടുള്ള സന്തോഷങ്ങള് തരുന്നത് അതേപോലെ ചിലപ്പോൾ നമുക്ക് സങ്കടങ്ങള് തരുന്നതും ആയിരിക്കും പക്ഷെ നമ്മളത് പൊന്നുപോലെ ഇപ്പോഴും ആ ഫോട്ടോയെ സൂക്ഷിക്കും പക്ഷേ ഇപ്പോഴത്തെ ഉള്ള ഡിജിറ്റൽ ഫോട്ടോകളെ പോലെ അത് കളറ് മങ്ങാതെയോ അല്ലെങ്കിൽ വെള്ളം വീണാൽ നശിക്കാതെയോ അങ്ങനെ ഒന്നും ഇല്ല പകുതിയും ഫോട്ടോയില് ചിലപ്പോൾ കാണാതെ അവസ്ഥയും വരാം ചിലപ്പോൾ ഒര് പേപ്പറിലെ കൂടെ ഒട്ടി പോയാല് നമുക്കത് കാണാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഒക്കെ പല വിധത്തിലുള്ള തകരാറ് സംഭവിക്കും പക്ഷെ ഇപ്പോഴത്തെ ഫോട്ടോയുടെ കാര്യം ആണെങ്കിൽ പഴയ ഫോട്ടോയെക്കാൾ എത്രയോ എൻ വെള്ളത്തില് വീണാൽ പോലും നശിക്കാത്ത വിധത്തില് അത്ര സാങ്കേതികമായി ഡിജിറ്റൽ ആയിട്ടുള്ള പുതുമ നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോയില് കാണാം ഇപ്പം കുറെ നമുക്ക് കുറേ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് രീതിയില് വേണമെങ്കിലും ഫോട്ടോയാക്കി എടുക്കാം പക്ഷെ ഇപ്പോഴത്തെ ഫോട്ടോയെ വൈകാരികമായൊരു പഴയ ഫോട്ടോയ്ക്കുള്ള ഒരു വൈകാരികത ഇപ്പൊഴുള്ള ഫോട്ടോയ്ക്കില്ല അതേപോലൊരു മൂല്യവും ഉണ്ടെന്ന് ഞാന് കരുതുന്നില്ല ഞാന് വിശ്വസിക്കുന്നതുമില്ല കാരണം ഇപ്പോൾ നമുക്ക് ഏത് രീതിയില് വേണമെങ്കിലും ഫോണില് സേവ് ചെയ്ത് വെക്കാം കമ്പ്യൂട്ടറില് സേവ് ചെയ്ത് വെക്കാം അങ്ങനെ പല വിധത്തില് നമുക്കത് ഉപയോഗിക്കാൻ പക്ഷെ പഴയ ഫോട്ടോയ്ക്ക് ഉള്ള മൂല്യം ഇപ്പോഴത്തെ ഫോട്ടോയ്ക്ക് ഇല്ല